ഞാൻ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് എന്നു പറയുന്നത് ജീൻസ് ആയിരുന്നു അധികം തടിയിലാത്ത ആളായത് കൊണ്ടുതന്നെ ഇരുപത്തിയെട്ട് സൈസ്സിലായിരിന്നു ഞാന് ജീൻസ് ഓർഡർ ചെയ്തിട്ടിണ്ടായിരുന്നത് ഓർഡർ ചെയ്ത അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജീൻസ് ഒക്കെ വീട്ടില് എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർഡറിങ്ങിൻ്റെ ഡെലിവറിലെല്ലാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇനി ജീൻസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് നേവി ബ്ലൂ കളറിലായിരിന്നു ഞാൻ ജീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷായിട്ട് ഞാൻ ജീൻസ് ഓർഡർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു മൂന്ന് വർഷത്തിൻ്റെ ഇപ്പുറം അതിൻ്റെ കളറിലോ അതിൻ്റെ ക്വാളിറ്റിയിലോ എനിക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മൈന്യൂട്ട് സ്റ്റിച്ചിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആണ് അത് വളരെ വൃത്തിയും കാണാനും ഭയങ്കര ഭംഗിയും ഉള്ളതായിരിന്നു ഒരു ജീൻസ് ഇട്ടിട്ട് ഞാൻ ആ ജീൻസ് ഇട്ടിട്ട് ഞാൻ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ വരെ ചോദിച്ചു എത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കരായിട്ട് വണ്ടറടിച്ച് ഇരിക്കയായിരുന്നു അതുകൊണ്ടുത്തന്നെ ജീൻസിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സ്റ്റിച്ചിംഗ് കളർ അതിലെല്ലാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ജീൻസിൽ ഞാൻ എത്രയു അത്രേയും സാറ്റിസ്ഫൈഡ് തന്നെ ആണ്